ഇന്ത്യൻ ആരോഗ്യ സംരക്ഷണ സംവിധാനം എങ്ങനെയുള്ളതാണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് ആരോഗ്യ സംരക്ഷണ വിവിധ തരത്തിലുള്ള ഹോസ്പിറ്റലുകൾ പിന്നെ ഹെൽത്ത് സെൻ്ററ്കള് പിന്നെ ഹോമിയോ ആശുപത്രികൾ അങ്ങനെ നിരവധി തരത്തിലുള്ള ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്കത് തിരിച്ചും ഒത്തിരി തര ഒത്തിരി വീണ്ടും വീണ്ടും രോഗങ്ങൾ വർദ്ധിക്കുകയല്ലാതെ അതിൽ ഒരു ശമനം ഉണ്ടാവുന്നില്ല പല ഹോസ്പിറ്റലുകളും ഇപ്പം പ്രവർത്തിക്കുന്നത് മെയിനായിട്ടും ബിസിനസ്സുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അവർക്ക് കൃത്യവായിട്ടുള്ള ഒരു ഇപ്പം നമ്മൾ ഒരു ജോലി ജോ ഇപ്പം നേഴ്സ്മാരാണേലും ഡോക്ടർമാരാണേലും അവർ അവരുടെ ജോലി ശമ്പളം ഇതാണ് നോക്കുന്നതിപ്പം ഒരു ഓപ്പറേഷന് വേണമെങ്കിൽ തന്നെ നടക്കണമെങ്കിൽ തന്നെ എട്ടും പത്തും ലക്ഷമാണ് ആദ്യം അവർ ചോദിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ വന്നുകഴിഞ്ഞ് കഴിയുമ്പം അതൊരു ബിസിനസ്സായിട്ട് മാറുകയാണ് ആളുകള് ശരിക്കും അവരുടെ രോഗം മാറാനാണ് ഹോസ്പിറ്റലിലേക്ക് വരുന്നത് പക്ഷേ ചില ആശുപത്രികളതൊരു ബിസിനസ്സായിട്ടെടുക്കുന്നു പിന്നെ ചില കിഡ്നി കിഡ്നികളൊക്കെ ഹോസ്പിറ്റലിൽ വരുന്നവരുടെയൊക്കെ ചെറിയ രോഗവായിട്ട് വരുന്നവരുടെയൊക്കെ കിഡ്നി അതുപോലെ തന്നെ മസ്തിഷ്ക മരണം ഒക്കെ സംഭവിച്ചവർ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിലും മെയിനായിട്ടും അവർ പലതരത്തിൽ നമ്മുടെ ശാരീരിക അവയവങ്ങൾ വിൽക്കാനും അത് മൂ അതിലൂടെ ലക്ഷങ്ങൾ ഹോസ്പിറ്റലിനും അതിൽ ഉള്ള പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സിന് നേഴ്സന്മാർക്കുമൊക്കെ ശമ്പളവായിട്ട് അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് മരുന്നിനൊക്കെ വില കൂടുന്നത് അനുസരിച്ച് ആളുകൾക്ക് രോഗത്തിൽ യാതൊരു വിധത്തിലുള്ള ശമനം ഉണ്ടാവുന്നില്ല അപ്പം അത് രോഗികളുടെ എണ്ണം അത് കൂടുതലാകാനും ഒരു പ്രാവശ്യം മേടിച്ചു കഴിച്ച മരുന്ന് അതുമൂലം യാതൊരു തരത്തിലുള്ള ശമനം ഉണ്ടാവാതെ വീണ്ടും വീണ്ടും ആളുകൾ രോഗത്തിന് അടിമയായി തീരുകയാണ് ചെയ്യുന്നത് വീണ്ടും അസുഖം വരേണ്ട വിധത്തിലുള്ള മരുന്നുകളൊക്കെയാണ് അവർക്ക് വീണ്ടും കൊടുക്കുന്നത് അതുകൊണ്ട് ഇത് ആളുകൾക്കിടയിൽ വല്ലാത്ത ഭീതി ഉളവാക്കുകയും അതുപോലെ ഒത്തിരിയേറെ ആളുകൾ വീണ്ടും രോഗാവസ്ഥയിലായിട്ട് വീണ്ടും വീണ്ടും വീണ്ടും ഈ ആശുപത്രിയിലേക്ക് തന്നെ എത്തേണ്ടതായിട്ടും അതുപോലെ ഒരുപാട് ജീവൻ നഷ്ടപ്പെടുന്നതായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അതായത് കൃത്യമായൊരു ചികിത്സാ രീതി എല്ലായിടത്തും ലഭിക്കുന്നില്ല മെയിനായിട്ട് ഹോസ്പിറ്റലുകൾ ഫോക്കസ് ചെയ്യുന്നത് പൈസയാണ് അപ്പം ഇത്രയും പൈസ ഒന്നും അടയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞ് കഴിയുമ്പം ആളുകൾക്ക് വീടും കുടുംബവും ഒക്കെ അതേ സമയം അവരുടെ വീടൊക്കെ വിറ്റഴിച്ച് അവരില്ലാത്ത പൈസ ഉണ്ടാക്കിയായിരിക്കും ചിലപ്പോൾ ഹോസ്പിറ്റലുകളിലൊക്കെ വരിക എന്നാൽ അത് പിന്നീട് ചിലപ്പോൾ രോഗത്തിന് യാതൊരു വിധത്തിലുള്ള ശമനം ഉണ്ടാക്കുന്നതിനോ അതേ സമയം ആളുകളുടെ ജീവൻ തിരികെ കിട്ടുന്നതിനോ ഒന്നും യാതൊരു വിധത്തിലുള്ള മുന്നറിയിപ്പോ ഒരു ഭേതഗതിയോ കാണുന്നില്ല ഇപ്പം എനിക്കാണേല് അനുഭവം ഉണ്ട് പപ്പ ക്ക് വയ്യാതെ ഒരാഴ്ച്ചയോളം ഇവിടെ അടുത്തുള്ള ഒരാശുപത്രിയിൽ പ്രൈവറ്റ് ആശുപത്രി ആണ് അവിടെ അഡ്മിറ്റായതിന് ശേഷമാണെങ്കിൽ ഒട്ടും ആണെങ്കിൽ എന്താ രോഗം വന്നവർക്ക് ശെരിക്കും പറഞ്ഞാൽ സ്ഥിരീകരിക്കാൻ ആയിട്ട് പറ്റിയിട്ടില്ല ചുമയ്ക്കുമ്പോൾ ബ്ലഡ് വരുവായിരുന്നു പക്ഷെ ശ്വാസകോശത്തിലിങ്ങനെ പുക പുകയടങ്ങി അത് ഇൻഫെക്ഷനായിട്ടാണ് എന്നാണ് പറഞ്ഞത് എന്നാലാണെങ്കിലും അതിൽ വേറെ കുഴപ്പങ്ങൾ ഉണ്ടോ എന്നും ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യമോ ഒന്നും പറയുന്നില്ല എത്ര ദിവസം വേണം നമ്മൾ ചോദിക്കുന്നത് അനുസരിച്ച് അവർ ഇന്ന് പറയും നാളെ വിടാം നാളെ പറയും എന്നാ മറ്റെന്നാൾ വിടാം ഇങ്ങനെ ഓരോ ദിവസം നീട്ടി നീട്ടി നീട്ടി കൊണ്ടുപോകുക അപ്പം ഓരോ പ്രാവശ്യം നമ്മൾ മേടിക്കുന്ന മരുന്നിൻ്റെ ബിൽ അതനുസരിച്ച് കൂടിക്കോണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ആളുകളുടെ രോഗവും മാറുന്നില്ല പൈസയുടെ ബില്ലും കൂടുന്നു അതോടൊപ്പം വീണ്ടും വീണ്ടും അവരുടെ ആരോഗ്യം കുറയുകയാണ് ചെയ്യുന്നത് അതുമൂലം അവർക്ക് ഒന്നാമത് ഈ ഇപ്പോഴത്തെ മരുന്ന് കഴിക്കുമ്പോഴേക്കും ആളുകളുടെ പകുതി ആരോഗ്യം ഇല്ലാതെ ആവുകയാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെയൊക്കെ ഒരവസ്ഥ വന്ന് കഴിയുമ്പോൾ അത് ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ആയിരിക്കും ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയാണല്ലോ അവർ ഇതിന് വേണ്ടിയിട്ട് മരുന്ന് മേടിക്കാനായിട്ട് വരുന്നത് നമ്മുടെ എല്ലാവരും ആഗ്രഹിക്കുന്നത് അസുഖം മാറാനായിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലുകളിലും ഡോക്ടർമാരെയെല്ലാം കാണും നമ്മുടെ ആ സമയത്ത് ദൈവം എന്ന് പറയുന്നത് ഈ ഡോക്ടർമാരാണ് പക്ഷെ അവരിൽ പലരും ബിസിനസ് മെയി ബിസിനസ്സായിട്ട് തന്നെയാണ് ഈ ഹോസ്പിറ്റലുകളെ കൊണ്ടുപോകുന്നത് അപ്പം അത് ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ പ്രാധാന്യം അർഹിക്കുന്നൊരു ഘടകം തന്നെയാണ്